ഞങ്ങളുടെ സമുദായത്തിൻ്റെ പിന്തുണ കർഷകർക്ക് ഒത്തിരിയേറെ ഉപകാരപ്പെടുന്നുണ്ട് അത് എന്നാന്ന് ചോദിച്ചാൽ പാവങ്ങളെ സംബന്ധിച്ച് അവർക്ക് കോഴി വള കോഴികളെ വളർത്താനുള്ള സം കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു ആടിനെ വളർത്താൻ ആട്ടുക്കുഞ്ഞുങ്ങളെ അതുപോലെ പശുക്കളെ വാങ്ങിക്കാൻ കിടാരി അല്ലെങ്കിൽ കിടാരികളെ കൊടുക്കുന്നു അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു ഭക്ഷണം ഇല്ലാത്തവർക്ക് സമുദായത്തിൽ ഇങ്ങനെ ഓരോ സംഘടനകൾ വഴി ഓരോ യൂണിറ്റിലോട്ട് ഭക്ഷണപ്പൊതികൾ ധാരാളമായിട്ട് വ പ്രധാനം ചെയ്യുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസ സൗകര്യത്തിനായിട്ട് ഈ ചാസ് അതുപോലെ സോഷ്യൽ സർവീസ് അങ്ങനെയുള്ള സംഘടനകൾ വഴി ഒത്തിരി കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുന്നു ഇങ്ങനെ ലോണായിട്ടും വായ്പയായിട്ടും ഒക്കെ പ കുറഞ്ഞ പലിശ നിരക്കിൽ പൈസ എടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് സാധിക്കുന്നുണ്ട് അത് ഒത്തിരിയേറെ കുട്ടികൾക്ക് വളരെയേറെ ഫലപ്രദമായ ഒരു കാര്യമാണ് അതുപോലെ പള്ളിയിൽ നിന്ന് വിത്ത് അ വിത്ത് കൃഷിക്കുള്ള വിത്തും ആ ചിലപ്പോൾ അവർ സ്ഥല സൗകര്യവും കൂടി നമുക്ക് കണ്ടെത്തിത്തരും ആ ഇപ്പോൾ ഉപയോഗമില്ലാത്ത കിടക്കുന്ന സ്ഥലങ്ങളെ കണ്ടെത്തി അവിടെ കൃഷിയിറക്കി കൃഷിയിറക്കി അതിൽ നിന്ന് ആദായം എടുക്കാനുള്ള സൗകര്യവും നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പള്ളി നമ്മൾ സമുദായത്തിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ ഉപകാരങ്ങളുണ്ട് ഈ പുരയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവർക്ക് അതുപോലെ വിദ്യാഭ്യാസത്തിന് അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ഒത്തിരി സഹായങ്ങൾ നമുക്ക് സമുധായത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്